ഞാന് ഉപയോഗിക്കാറുള്ള കളർ എന്ന് വെച്ചാല് എല്ലാ കളറും ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ ഏത് ഏതൊരു ചിത്രയ ചിത്രങ്ങളാണോ വരയ്ക്കുന്നത് അതിനനുയോജ്യമായ കളറുകളാണ് ഞാൻ ചെയ്യാറ് അതുപോലെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് രണ്ടു കളറുകൾ മിക്സ് ചെയ്തിട്ട് ഒരു കളർ ഉണ്ടാക്കുന്നുണ്ടല്ലൊ അതുപോലുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ട്ടമാണ് കളറുകളൊക്കെ ഉണ്ടാക്കാൻ ഇപ്പോൾ ഓറഞ്ചും നീലയും മഞ്ഞയും കൂടി ഏ അടിച്ചാല് ഒര് ഓറഞ്ച് കളറ് വരും ആ രീതിയില് കളറുകളൊക്കെ ഏ ഉണ്ടാ പുതിയ കളറുകളൊക്കെ ഉണ്ടാക്കാൻ എനിക്കിഷ്ട്ടാണ് അതുപോലെ ഇപ്പം എന്താണ് നമ്മള് വരയ്ക്കുന്നത് ഇപ്പോൾ ഒരു പുഴയോ ഒരു പരിസരമാണെങ്കിൽ ഇപ്പോൾ വയലും പരിസരങ്ങളും ആണെങ്കില് വയലിന് അനുയോജ്യമായ പച്ചപ്പ് കൂടുതലുള്ള പച്ച കളർ അതുപോലെയുള്ള രീതിയിൽ ഓരോന്ന് ചെയ്യാറുണ്ട് ഓരോ കളറുകളാണ് ഞാൻ ചെയ്യാറ്